എൻ്റെ അനിയത്തി വളരെ നല്ലൊരു ചിത്രകാരിയാണ് അവൾ നല്ല രീതിയിൽ കൊച്ചിലേതൊട്ടേ ഫോണിൽ ഓരോ പടങ്ങൾ നോക്കി അതതേപോലെ വരയ്ക്കാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ അന്നൊന്നും എനിക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ പിന്നെ മെല്ലെ മെല്ലെ അവളായിട്ട് തന്നെ ഇങ്ങോട്ട് ഓരോന്ന് ചോദിച്ച് തുടങ്ങി എന്നേപോലെ ഇങ്ങനെത്തെ പെൻസിലുകൾ വാങ്ങിത്തരുമോ ഈ ഗ്രാഫൈറ്റ് പെൻസില്കൾ പലപല ഷെയ്ഡിലുള്ള ഗ്രാഫൈറ്റ് പെൻസില്കൾ വൈറ്റ് പെൻസില്കൾ പിന്നെ ഡ്രോയിങ് ബുക്ക് അങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ എന്തിനാണ് വെറുതെ പൈസ കളയുന്നത് അതിന്റൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇതാണ് അവളെ അവളുടെ കഴിവുകളെ ഇംപ്രൂവ് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത് ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും ചിത്രം വരച്ച് തുടങ്ങുന്നവർക്കും അത് അതിൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് ഇതേപോലെ പല രീതിയിലുള്ള പെൻസില്കൾ നിങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങുക ഈ വരക്കാനൊക്കെ ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങുക അത് വച്ച് പ്രാക്റ്റീസ് ചെയ്യുക നല്ല രീതിയിൽ വരച്ച് വരച്ച് തന്നെ പ്രാക്റ്റീസ് ചെയ്യുക കുറേ വരച്ചാൽ തന്നെയേ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഇപ്പോൾ ക്ലാസുകളൊക്കെ ലഭ്യമാണ് പല രീതിയിൽ ഷെയ്ഡിങ്ങും അതും മറ്റുമെല്ലാം പഠിപ്പിക്കുന്ന ക്ലാസുകളും അതെല്ലാം ലഭ്യമാണ് അപ്പോൾ അതൊക്കെ അറ്റെൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ അറ്റെൻഡ് ചെയ്യുന്തോറും നമ്മളുടെ കഴിവുകൾ നല്ല രീതിയിൽ കൂടുമെന്നും അതൊക്കെ പഠിപ്പിക്കുന്നവർ വളരെ നല്ലൊരു മികച്ച നിലയിലുള്ള ആൾക്കാരാണ് എന്നാണ് എൻ്റെ അറിവ് ഇപ്പോൾ എൻ്റെ അനിയത്തിക്കും ഞാനതേ പോലൊരു കോഴ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പൈസ ആവുന്ന പണം ഒരു പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൂട്ടാം അത് അതുകൊണ്ടുതന്നെ നമുക്കത് ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെത്തെ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ പണം ചിലവാക്കിത്തന്നെയേ നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുകയുളളൂ ഇതേപോലത്തെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽവെച്ച് നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള വളരെ നല്ലൊരു ചാൻസുണ്ട് ഇപ്പോൾ കോളേജുകളിൽ പോയാൽ പോലും അവിടെ പലപല രീതിയിലുള്ളെ ഫെസ്റ്റിവലുകളും മറ്റും ഉണ്ടാകും കലോത്സവങ്ങളൊക്കെ കുറേ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഈ കഴിവ് തെളിയിക്കുന്നതിൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്